എനിക്കിഷ്ടം പച്ചക്കറികളാണ് അത് വെച്ചാല് ഇപ്പോഴത്തെ കാലത്ത് പച്ചക്കറികൾ കിട്ടാൻ വിഷമാണല്ലോ പിന്നെ പുറത്ത് നിന്ന് കിട്ടുന്ന പച്ചക്കറികളാണെങ്കില് മായം ചേർന്നതും നമ്മള് ഉണ്ടാക്കുന്ന പച്ചക്കറി ആണെങ്കില് ഓർഗാനിക് പച്ചക്കറിയാണ് അതില് വിഷങ്ങളില്ല കുട്ടിൾക്ക് കഴിക്കാം പിന്നെ പച്ചക്ക് കഴിക്കാം നല്ല സ്വാദ് ഉണ്ടാകും അതുകൊണ്ട് പച്ചക്കറി മറ്റേത് പുറത്ത് നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറി ആകുമ്പം അതില് കെമിക്കല് ചേർത്ത് പച്ചക്കറി ചീത്ത ആവാണ്ട് നിക്കാൻ വേണ്ടിറ്റ് ചെയ്യലാണ് ഇതാകുമ്പോ നമ്മള് വളങ്ങളൊന്നുല്ല ജൈവ വളങ്ങള് മാത്രാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉള്ള പച്ചക്കറികളാകുമ്പോൾ നമ്മളുടെ വീട്ട് മുറ്റത്ത് ഉണ്ടാകുന്ന പച്ചക്കറികൾക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കറിവേപ്പില തക്കാളി പയറ് ഒക്കെ ആകുമ്പോൾ ഒക്കെ വഴുതന കയപ്പ വെണ്ട ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള കറികള് ഉണ്ടാക്കുകയും ചെയ്യാം പച്ചയില് നമുക്ക് കഴിക്കുകയും ചെയ്യാം പിന്നെ എല്ലാ രോഗ പ്രതിരോധത്തിനും നല്ലതാണ് പച്ചക്കറികള് പച്ചക്കറികള് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികള് കിട്ടാനേ ഇല്ല നമുക്ക് കിട്ടുന്നത് ആണെങ്കില് എന്തൊക്കെയോ അതില് രാസവസ്തുക്കള് ചേർത്ത് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് പച്ചക്കറികള് ഉണ്ടാക്കാന് ഇപ്പം വെച്ചാല് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്ന് എല്ലാ വിത്തുകളും തൈകളും ഒക്കെ കിട്ടുന്നും ഉണ്ട് ഓരോ വീട്ടിലും കൃഷി തോട്ടം പച്ചക്കറി തോട്ടം ഉണ്ടാകണം എന്നാൽ ഒരു വീട്ടില് ഒരു തൈ എന്നെങ്കിലും വേണമെന്നാണ് ഗവൺമെൻറ്റിൻറെ ഓർഡർ